വിളകൾ ഉൽപാദിപ്പിക്കപ്പെടുന്നതിന് മണ്ണ് ഇളക്കി ഉഴുതു മറിക്കുക എന്നുള്ളൊരു സംവിധാനം അതിന് നേരത്തെ പഴയ കാലത്ത് മൃഗങ്ങളെ കൊണ്ട് കലപ്പ കെട്ടിയും കിളച്ചും ഒക്കെയായിരുന്നു ഈ മണ്ണിനെ ഇളക്കി മറിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് ഈ ഈ പറഞ്ഞ പ്രക്രിയയിൽ വ്യത്യാസം വ്യത്യാസം ഒന്നുംകൂടെ സ്പീഡിൽ ആക്കുന്നതിന് വേണ്ടിയായിട്ട് യന്ത്രത്തെ സഹായിക്കാൻ തുടങ്ങി യന്ത്രത്തെ പിന്നെ ആശ്രയിക്കാൻ തുടങ്ങി മനുഷ്യൻ അങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ട്രാക്ടറെ മണ്ണിളക്കുന്നതിന് വേണ്ടി ആ ട്രാക്ടറുകൾ ട്രില്ലറുകൾ അങ്ങനെയുള്ള അ അത്കളും അതിനെ ഉൽപാദിപ്പിക്കും ഇപ്പോൾത്തന്നെ ഇപ്പോൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ വിളകൾ പാകുന്നതിന് വരെയുള്ള യന്ത്ര സംവിധാനങ്ങൾ വരെ മനുഷ്യൻ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് അതിന് അതുവരെ നമ്മൾ കണ്ടു അതുപോലെത്തന്നെ കൊയ്യാൻ അതായത് യന്ത്രത്തെ കായി ഫലം ആയിക്കഴിയുമ്പോൾ അതിന് ഉതിർത്തെടുക്കാൻ അതായത് കൊയ്തെടുക്കാനും അതിനെ പറിച്ചെടുക്കാനും മെനക്കെടാതെ യന്ത്രത്തെ യന്ത്രത്തെ ആശ്രയിക്കുന്ന ഒരു സംവിധാനവും ഇപ്പം നിലവിലുണ്ട് ഇതിനെ ഈ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് അതിന് കമ്പോസ്റ്റ് വളങ്ങൾ ആ കമ്പോസ്റ്റ് വളങ്ങളും രാസപദാർത്ഥങ്ങളും ഉപയോഗിച്ച് ഉത്പന്ന ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഇന്നും മനുഷ്യൻ പല കൃത്രിമ രീതിയിലുള്ള കാര്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ ഉത്പാദനം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് ഇപ്പം കണ്ടെത്തി